അതുപോലെ നല്ല ഒരു കൂടുകൾ വേണം അതുപോല തുരുമ്പെടുക്കാത്ത അവർണ്ണമുള്ള വയർ മെഷൻ ഒക്കെയാണ് കോഴിക്കൂട് ഉണ്ടാക്കാൻ ആയിട്ട് ഉപയോഗിക്കേണ്ടത് അതുപോലെ അതിനെ പിന്നെ അതുപോലെ തന്നെ അതിന് സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോവാൻ സാധിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അതുകൊണ്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾക്ക് അതിനെ കയറ്റുമതി ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവുകയില്ല പിന്നെ അതുപോലെ തന്നെ കൂട് ഒന്നിൽ നാല്പത് നാല്പത് എണ്ണത്തെയൊക്കെ വളർത്താൻ പറ്റുന്ന രീതിയിലുള്ള കൂടുകളൊക്കെ ക്രമീകരിച്ച് അതുപോലെ വെള്ളം കൊടുക്കാനായിട്ടും സമയത്തിനനുസരിച്ച് വെള്ളം കൊടുക്കുക അതുപോലതന്നെ മുട്ടകൾ വന്നുവീഴാനുള്ള ക്രമീകരണങ്ങൾ അങ്ങനെയൊക്കെ പറ്റുന്ന കൂടുകളിപ്പം നിലനിൽക്കുന്നുണ്ട് അതൊക്കെ അനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഒരുപാട് നല്ലതായിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം അതുപോലതന്നെ മരുന്നുകളും ഒക്കെ കറക്റ്റ് കറക്റ്റ് കൊണ്ടുപോവുകയും അതുപോലെ ഇതിന് വളമൊക്കെയാണെങ്കിൽപ്പോലും നമുക്കൊത്തിരി നല്ലതാണ് നമുക്ക് എവിടെയാണെങ്കിലും അത് ഉപകാരപ്രദമാണ് നമുക്ക് കൃഷിക്കാണെങ്കിലും ഈ കോഴിവളർത്തലിലൂടെ ആ കോഴി വളവും നമുക്ക് ഉപകാരപ്രദമായിട്ട് മാറുകയാണ് കൃഷിക്ക് ഒത്തിരിയേറെ അനുയോജ്യമായിട്ടുള്ള ഒരു വളമാണ് കോഴിവളം അപ്പം ഏതൊക്കെ രീതിയിൽ നോക്കിയാലും കോഴി വളർത്തൽ നമുക്ക് നഷ്ടമല്ല ഒരു നന്മയായിട്ട് തന്നെയാണ് നിലകൊള്ളുക അതുപോലെതന്നെ ഇതിനെയൊക്കെ വളർത്തുമ്പോഴത്തേക്കും ഇതിന് പലരീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവാം പക്ഷേ എങ്കിലും അതിനുവേണ്ടി ഡെഡിക്കേറ്റ്ഡ് ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ചെടുത്തോളം ഈ ഇത് ഒത്തിരിയേറെ നല്ലതായിട്ടാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ ചെറുകിട കർഷകരെ കർഷകർക്ക് ഒക്കെയാണേലും ഇതൊരുപാട് നല്ലതാണ് അതുപോലെ തന്നെ സഹായങ്ങളും സർക്കാരുകളിൽ നിന്ന് പിന്നെ സഹായങ്ങളൊക്കെ ലഭിക്കാറുണ്ട് ഓരോ സമയങ്ങളിൽ ലഭിക്കാറുണ്ട് ഇതിനോട് ബന്ധപ്പെട്ട് ലക്ഷ്യമിടുന്ന ഏതെങ്കിലും പദ്ധതികളുണ്ടോ എന്നു ചോദിച്ചാൽ എനിക്ക് അതിനെപ്പറ്റി വലിയ അറിവുകൾ ഒന്നും ഇല്ല എങ്കിലും എൻ്റെതായ രീതിയിൽ പറയുകയാണെങ്കിൽ ഈ ഒരു പിന്നെ ബിസിനസ്സ് അല്ലെങ്കിൽ ഈ ഒരു പദ്ധതി ഒത്തിരിയേറെ നല്ലതാണ് നമുക്കൊക്കെ ഒരുപാട് ഗുണകരമായിട്ട് ഫലപ്രദമായിട്ട് മുൻപോട്ട് കൊണ്ടുപോവാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ കോഴി വളർത്തൽ കൊണ്ട് ഉദ്ദേശിക്കുക അത് നമ്മൾക്കും നല്ലതാണ് നല്ല മുട്ട ലഭിക്കും നമുക്ക് വേറൊയൊരു രീതിയിൽ നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നിങ്ങോട്ടേയ്ക്ക് വരുത്തേണ്ട ആവശ്യവില്ല മറിച്ച് നമ്മുടെ മുട്ടകൾ നമ്മുടെ ഇടയിൽ തന്നെ വിൽക്കുവാനും അത് കൂടുതലും ഗുണമേന്മയുള്ളതാക്കി മാറ്റുവാനും നമുക്ക് സാധിക്കും അതിനുവേണ്ടി തയ്യാറെടുക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുവാനും ഗവൺമെൻ്റിന് കടമയുണ്ട് കാരണം നമ്മുടെ രാജ്യത്ത് തന്നെ നമ്മുടെ സ്ഥലത്ത് തന്നെ ഈ ഇങ്ങനെയുള്ള ഫാം പോലെയുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു മുന്നോട്ട് കൊണ്ടു വരികയാണെങ്കിൽ നമ്മുടെ നമ്മുടെ സ്ഥലത്ത് തന്നെയാണ് കൂടുതൽ നന്മയുണ്ടാകുക എല്ലാരീതിയിലും അത് നല്ലതാണ് പിന്നെ കൂടുതലും ഈ ചില സമയങ്ങളിൽ ഉണ്ടാകുന്ന പക്ഷികൾക്ക് ഉണ്ടാകുന്ന പക്ഷിപ്പനി പോലെയുള്ള കാര്യങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കുകയും അതുപോലെ ആ രോഗങ്ങളിൽ നിന്ന് വിമുക്തമാക്കത്തക്ക രീതിയിലുള്ള മെഡിസിൻസ് യഥാ സമയങ്ങളിലൊക്കെ കൊടുത്തൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഈ ഈ കോഴി വളർത്തലെപ്പോഴും നല്ലതായിട്ട് മുൻപോട്ട് കൊണ്ടുപോവാൻ സാധിക്കും എന്നു തന്നെയാണ് എനിക്ക് പറയാൻ സാധിക്കുന്നത് അതുപോലെ ഇതിനുവേണ്ടി തയ്യാറെടുക്കുന്നവരെ സംബന്ധിച്ചെടുത്തോളം ഇതിനുവേണ്ടി കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ നൂറു ശതമാനം നല്ല ലാഭമുണ്ടാക്കാൻ സാധിക്കും എന്നു തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം പിന്നീട് മറ്റുള്ളവരുടെ മുൻപിൽ കൈനീട്ടാൻ സാധിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് നല്ല ഉയർച്ച ഉണ്ടാവുക ഇതിനുവേണ്ടി കഷ്ടപ്പെടാൻ തയ്യാറാവുകയാണെങ്കിൽ ഈ കഷ്ടപ്പെടണം അതുപോലെതന്നെ ഇതിനു വേണ്ടത് സമയാസമയം വെള്ളമായിട്ടും തീറ്റയായിട്ടും ഉള്ളതെല്ലാം കൊടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും മനോഹരമായിട്ട് ഈ ഒരു സംരംഭത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നു തന്നെയാണ് എനിക്ക് പറയാനുള്ളത്